എഴുത്തിൻ്റെ വഴിയിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അഭിലാഷം എന്നു പറയുന്നത് ഒരു വലിയ വായനക്കാരെ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്നു പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ അതു വായിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമാണ് ആ എഴുത്തിന് അർത്ഥമുണ്ടാവുക ഇപ്പോൾ ഒരു ഗായകൻ അദ്ദേഹം വെറുതെ ബാത്റൂമിൽ പാടിയിട്ട് കാര്യമില്ല ബാത്റൂമിൽ പാടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നും അതിലൂടെ ലഭിക്കുന്നില്ല മറിച്ചു അയാൾ പാടുകയും അയാളുടെ പാട്ട് ഒരു സമൂഹം ഒന്നാകെ ഏറ്റെടുക്കുകയും അവർ അതിന് കൈ അടിക്കുകയും അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഗായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഐഡൻ്റിറ്റി ഉണ്ടാവുക എ ന്നു പറഞ്ഞത് പോലെ തന്നെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചു അദ്ദേഹത്തിന് വായനക്കാരുടെ ഒരു വലിയ ലോകം സ്വന്തമാകുമ്പോഴാണ് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടുന്നത് അപ്പം അത് ലഭിക്കുക എന്നുള്ളതാണ് ഏതൊരു എഴുത്തുകാരൻ്റെയും ആഗ്രഹം ലോക സാഹിത്യ ചരിത്രം പൊതുവിൽ പരിശോധിച്ചാൽ പല എഴുത്തുകാരും അവരെ ജീവിതകാലത്ത് തന്നെ ഇങ്ങനെ ഒരു വലിയ ആസ്വാദക ലോകത്തെ നേടിയവരാണ് അതാണ് അവരുടെ എഴുത്തിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ആണെങ്കിലും എഴുത്തിലൂടെ നേടിയെടുക്കണം എന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ എഴുത്തിനെ ആസ്വദിക്കുന്ന എൻ്റെ എഴുത്തിനെ വായിക്കുന്ന എൻ്റെ എഴുത്തിനെ അംഗീകരിക്കുന്ന അതിനെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നു പറയുക എഴുത്തുകാരൻ ഇപ്പം ഒരു കൃതി പ്രശസ്തമായി അപ്പം അതിൽ നിന്ന് വളരെയധികം വരുമാനമുണ്ടാക്കി അതിനൊക്കെ അപ്പുറത്ത് ഇപ്പം ചിലപ്പോൾ ചില എഴുത്തുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചില ചലചിത്രത്തിൽ ഏത് മേഖലയിലും ചിലപ്പോഴൊക്കെ കാണുന്ന ഒരു കാര്യം ഉണ്ട് അത് പ്രശസ്തമാകാൻ വേണ്ടി പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചില വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കും മനപ്പൂർവ്വം ഉണ്ടാക്കുക അതിലൂടെ അതിനെ എന്താണ് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അപ്പം അങ്ങനെ വിവാദമായതാണല്ലോ എന്ന ഇത് ഒന്നു കണ്ടുകളയാം അല്ലെങ്കിൽ കേട്ടു കളയാം വായിച്ചു കളയാം എന്നുള്ള രീതിയിലേക്ക് ആസ്വാദക ആസ്വാദകരുടെ ഒരു നിര കടന്നു വരുന്നു പക്ഷേ അതല്ല ഒരിക്കലും യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടത് മറിച്ചു തൻ്റെ കൃതി അത് തനിക്ക് ചുറ്റും ഒരു ആസ്വാദക പക്ഷമുണ്ട് ആസ്വാദക ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് എഴുതാനും അവർക്ക് വായിച്ചു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഭാഷയിൽ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചു ഒരു കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുന്നത് തന്നെ ജനകീയ കവി എന്നാണ് ജനകീയ കവി അപ്പദ്ദേഹം പറയുന്നുണ്ട് വടജനങ്ങടെ നടുവിലുള്ള ഒരു വടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം ഒരു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ രസിപ്പിക്കണമെങ്കിൽ അവരുടെ ഒരു ആസ്വാദക ലോകത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ എഴുതണം അപ്പം അവർക്ക് ഉചിതമായ ഭാഷ അവർക്കു മനസ്സിലാകുന്ന ഭാഷ അവർക്ക് കേൾക്കാനും അവർക്ക് വായിക്കാനും മനസ്സിലാക്കാനും ആനന്ദിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു ഭാഷ ഉണ്ടാവണം എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വച്ചതിൻ്റെ അർത്ഥം അപ്പം അത്തരത്തിൽ എഴുതുമ്പോഴാണ് എഴുത്തിനൊരു മനോഹാരിത ഉണ്ടാവുക അപ്പം അങ്ങനെ ആസ്വാദകരെ നേടുക അതാണ് എഴുത്തിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കേണ്ടത് ലക്ഷ്യം വയ്ക്കുന്നത് അതാണ് ആവശ്യം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ സച്ചിദാനന്ദൻ്റെ ഗാന്ധിയും കവിതയും എന്ന പേരിൽ ഒരു കവിതയുണ്ട് ആ കവിതയിൽ കാണുന്നത് കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം മെലിഞ്ഞു നീണ്ട ഒരു കവിത ഗാന്ധിയെ കാണാൻ എത്തി ഗാന്ധി ആ സമയത്ത് കുനിഞ്ഞിരുന്നു രാമനിലേക്കുള്ള നൂൽ നൂൽക്കുകയായിരുന്നു കവിത മുരളനക്കിയപ്പോൾ ഗാന്ധി മുഖമുയർത്തി നോക്കി നരകം കണ്ട കണ്ണാടിയിലൂടെ നോക്കി ചോദ്യം ആരംഭിച്ചു എപ്പോഴെങ്കിലും നൂൽ നൂറ്റിട്ടുണ്ടോ തോട്ടിടെ വണ്ടി വലിച്ചിട്ടുണ്ടോ ഇതൊക്കെ കേട്ടിട്ട് ഈ കവിത മറുപടി പറയുകയാണ് കാട്ടിലായിരുന്നു ജനനം കുറച്ചു നാൾ പിന്നീട് കുറച്ചുനാൾ പാട്ടുപാടി രാജകൊട്ടാരങ്ങളിൽ കഴിഞ്ഞു അന്ന് തടിച്ചു കൊഴുത്തിരുന്നു ഇപ്പോൾ തെരുവിലാണ് അരവയറിൽ ഇപ്പിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പറയുകയാണ് അവസാനം പറഞ്ഞത് കൊള്ളാം എന്നിട്ട് വീണ്ടും ഗാന്ധി പറയുന്നു തെരുവിലേക്ക് ചെല്ലൂക കർഷകരുടെ ഇടയിലേക്ക് ചെല്ലുക അവർ പറയുന്നത് ശ്രദ്ധിക്കും അപ്പം അങ്ങനെ ഈ കവിത അവസാനിക്കുന്നതിനെയാണ് കവിത ഒരു മിത്ത് ആയിട്ട് മാറി കവിത ഒരു മിത്തായിട്ട് മാറി മണ്ണിൽ കിടക്കുകയാണ് എന്നിട്ട് മഴപെയ്തു കർഷകൻ നിലം ഉഴുതാൻ വരുന്നത് കാത്തു കിടന്നു എന്നാണ് പറയുക അപ്പോൾ അവിടെ ഈ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം സച്ചിദാനന്ദൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ കവിത എന്നു പറയുന്നത് അല്ലെങ്കിൽ സാഹിത്യം എന്നു പറയുന്നത് സാധാരണക്കാർക്ക് അനുഭവേദ്യമാകുന്നതാകണം അല്ല അവരുടെ ഭാഷയിൽ അവരുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതാവണം അപ്പോഴാണ് കവിതയ്ക്ക് ഒരു ഒരു ഒരു ഒരു ജനകീയ മുഖം ഉണ്ടാവുക അപ്പോഴാണ് ആസ്വാദകരുണ്ടാകുക അപ്പം ആസ്വാദകരെ നേടുക എന്നതാണ് എഴുത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട നേട്ടം അല്ലെങ്കിൽ എഴുത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട നേട്ടം അതു തന്നെയാണ് ഓരോ എഴുത്തുകാരനും നേടേണ്ടത്